എന്റെ പ്രദേശത്ത് കലാ സാംസ്കാരിക വികസനത്തെ ഏറ്റവും കൂടുതല് ധനസഹായത്തിനായിട്ട് പിന്തുണക്കുന്നത് കോപ്പറേറ്റ് പോലുള്ള സ്ഥാപനങ്ങള് അല്ലെങ്കില് എന്താ പറയുക ചില ഏജന്സികളൊക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് അവരുടെ ആ കലേനെ കൊണ്ടുവരാനായിട്ട് അവര്ക്ക് ഇതിന് സ്പോന്സൺറൊക്കെ ചെയ്യാറുണ്ട് പിന്നെ ചെയ്യുന്നത് ചില ക്ലബ്ബുകാരൊക്കെ അവര്ക്കുവേണ്ടിയിട്ട് ധനസഹായങ്ങള് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പക്ഷേ സര്ക്കാരിന്റെ സൈഡില് നിന്ന് നമുക്ക് അത്ര ധനസഹായം പ്രതീക്ഷിക്കുന്ന പോലെയൊന്നും കിട്ടാറില്ല അപ്പം അതിനുവേണ്ടി നമ്മള് അപേക്ഷ വയ്ക്കണം അങ്ങനെ കുറേ കുറേ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ അത് പരിഗണിച്ച് വരുമ്പം ഒരുപാട് സമയങ്ങളാകും അപ്പം അതിനുവേണ്ടി സര്ക്കാരിന്റെ സൈഡിൽ നിന്ന് കാര്യമായ ഒരു സഹകരണം ധനസഹായം ഇതുവരെ നമുക്ക് ലഭിച്ചിട്ടില്ല പിന്നെയും കൂടുതല് ചില കുടുംബങ്ങള് അല്ലെങ്കില് ചില വ്യക്തികളൊക്കെയാണ് കൂടുതല് ധനസഹായം ഇങ്ങനെ ചെയ്ത് ഞങ്ങളുടെ ഈ പ്രദേശത്തൊക്കെ അങ്ങനെയാണ് ഞാന് കണ്ടുവരുന്നത് ഇപ്പം ഞങ്ങളുടെ അടുത്തുതന്നെയുള്ള എന്തെങ്കിലും ഒരു പ്രോഗ്രാം ഉണ്ട് എങ്കില് അവര്ക്കതിനു വേണ്ടിയിട്ടുള്ള ഡ്രസ്സിന്റെ കാര്യങ്ങള് അല്ലെങ്കില് അവര്ക്ക് പോകാനുള്ള വണ്ടി അങ്ങനെ ഉള്ള കാര്യങ്ങള് ചെയ്തു കൊടുക്കുന്ന ഒന്നെങ്കില് ഓരോ വ്യക്തികള് അല്ലേൽ എജെന്സികള് വലിയ ഓരോ ക്ലബ്ബുവഴി അല്ലേൽ അങ്ങനെ അല്ലെങ്കില് കുറച്ച് ആള്ക്കാര് ആ പ്രദേശത്തെ ആള്ക്കാര് എല്ലാവരും കൂടി കൂടിയിട്ട് കുറച്ച് പൈസ ശേഖരിച്ച് അവര്ക്ക് കൊടുക്കും അങ്ങനെയെക്കെയാണ് എന്റെ ഈ പ്രദേശത്തെ ഞാന് കണ്ടുവരുന്നത് കൂടുതലായിട്ടും ഓരോ ക്ലബ് കുടുംബങ്ങള് ഓരോ വ്യക്തികള് പിന്നെ കോര്പ്പറേറ്റിൽ നിന്ന് അങ്ങനൊക്കെയാണ് ഓരോ സഹായങ്ങളൊക്കെ ഈ കലാസാംസ്കാരിക വികസനത്തെ പിന്തുണയ്ക്കാനായിട്ട് ഞങ്ങളുടെ പ്രദേശത്ത് ചെയ്ത് വരുന്നത്